തൃശ്ശൂര് ജില്ലയിലെ സ്ത്രീകള് അധികം ബാക്കിയുള്ള ജില്ലയിലെപ്പോലെ അധികം നേരിടുന്നൊന്നുമില്ല കാരണം ഇവിടുത്തെ എല്ലാ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് അവർക്ക് അതെല്ലാം ലഭ്യമാക്കാൻ പറ്റാവുന്ന എല്ലാം നമ്മുട് സർക്കാർ കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്ത്രീകൾ പഠിക്കട്ടെത് പെണ്ണുങ്ങൾ പഠിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ എന്നും എവിടേയും ഇല്ല പക്ഷെ തൊഴിലിൻറ്റെ കാര്യത്തില് സ്ത്രീകള് ഇപ്പളും ബുദ്ധിമുട്ടുകള് കുറെ നേരി നേരിടുന്നുണ്ട് എത്രയാണോ പുരുക്ഷന്മാർക്ക് കിട്ടുന്നത് എത്ര മാത്രം തൊഴില് പുരുക്ഷന്മാർക്ക് കിട്ടുന്നൊ അതിൻറ്റെ പകുതിയോളം മാത്രമേ സ്ത്രീകൾക്ക് ഇപ്പം കിട്ടുന്നുടാവുകയുള്ളു അതായത് പറഞ്ഞപ്പോലെ പണ്ടത്തെ ആൾക്കാർ പണ്ടത്തെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും പുരുഷന്മാര്ൻറ്റത്ര ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പലയിടയും ഈ തൊഴിൽ സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നാൽ ഇപ്പത്തെ സ്ത്രീകൾക്ക് ഇപ്പം ഇപ്പത്ത പുരുക്ഷന്മാരുടെ അത്ര തന്നെ അവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവർക്കും പുരുഷന്മാരുടെ പോലെത്തന്നെ ഉള്ള തൊഴിലിനുള്ള അവകാശം അത്ര തന്നെ ത്രൊ എത്രത്തോളം പുരുഷന്മാർക്ക് ജോലികിട്ടുന്നുവോ അത്രത്തോളം ഇപ്പത്ത സ്ത്രീകൾക്കും കിട്ടുന്നുണ്ടെന്നാണ് എൻറ്റോരു നിഗമനം പിന്നെ സാമൂഹിക നില എന്ന് പറയുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞത് പോലെ അവർക്ക് അതിലൊന്നും ഇപ്പത്ത സ്ത്രീകള് ഇതൊന്നും അധികം നേരിടുന്നില്ല ഇതൊക്കെ മുൻക്കാലത്ത് ഉണ്ടായിരുന്ന പ്രശ്നമാണ് ഇപ്പം കൂടുതലും ഇപ്പം തൃശ്ശൂര് ജില്ലയിൽ ഇത് നേരിടുന്ന തൃശ്ശൂർ ജില്ലയിലത്തെ സ്ത്രീകള് നേരിടുന്നത് വളരെ കുറവായിരിക്കും ബാക്കിയുള്ള ജില്ലകളെ വെച്ച് നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഇപ്പഴും സ്ത്രീകള് ചിലവർ പുരുക്ഷന്മാര്നെകാട്ടിലും പിന്നോട്ട് അങ്ങനേക്കെണ്ടായിരിക്കും എന്നാൽ കൂടെ തൃശ്ശൂർ ജില്ലയിൽ അത്രയൊന്നും കാണുന്നില്ല